ഞാൻ പാചക രീതി അതേപടി അനുകരിക്കാറില്ല കാരണം എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ഭക്ഷണത്തിൽ ധാരാളം എരിവ് ആവശ്യമാണ് മാത്രമല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ധാരാളമായിട്ട് ഞാൻ ചേർക്കാറുണ്ട് അതുകൊണ്ടു തന്നെ ദഹനത്തിന് വേണ്ടിയാണ് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ധാരാളം ചേർക്കുന്നത് കറിവേപ്പില മല്ലിത്തല എന്നിവ എല്ലാം മണത്തിന് വേണ്ടിയും കറിവേപ്പില ഏറ്റവും ശരീരത്തിന് വളരെ ഗുണമുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ടു തന്നെ കറിവേപ്പില ഞാൻ ധാരാളമായിട്ടു അരച്ചാണ് ചേർക്കുന്ന പതിവാണ് എനിക്കുള്ളത് അതുകൊണ്ട് കറിയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും കറിവേപ്പില കറിയിൽ നിന്ന് എടുത്തു കളയുന്ന അവസരം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അതു ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടു തന്നെ ശരീരത്തിന് ആവശ്യമായ പോഷകം വിറ്റാമിൻ സി കൂടി വിറ്റാമിൻ എ യും ഈ കറിവേപ്പിലയിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്നുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലം നമ്മള് മുറിച്ച് ഇട്ടാണ് ഇടുന്നതെങ്കിൽ അത് കുട്ടികൾക്ക് ഐ ആയിക്കോട്ടെ വലിയവരായിക്കോട്ടെ ഭക്ഷണത്തീന്ന് എടുത്തു കളയാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അതേസമയം അത് അരച്ച് ചേർക്കുമ്പോൾ അതിനെ എടുത്ത് കളയാൻ പറ്റില്ല അത് ശരീരത്തിലേയ്ക്ക് ലഭിക്കുകയും ശരീരത്തിൽ ഡൈജെഷൻ നടക്കാൻ ഭക്ഷണത്തിനു ശേഷം നമ്മുടെ ശരീരത്തില് ഡൈജഷൻ നടത്താൻ വളരെ എളുപ്പമാണ്